ഹലോ ആ എടീ ഞാനാണ് പ്രിയ ആണ് ആ സുഖമായിട്ട് ഇരിക്കുന്നോ എന്തൊക്കെ ഉണ്ട് വിശേഷം പിന്നേ നമ്മൾ അന്ന് അപ്ലൈ ചെയ്ത പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ എന്തൊക്കെ ആയി ആ നിന്റേത് വന്നോ ആ ആ എൻറേത് ഒന്നും ആയില്ല എടീ ആ കാരണം ചോദിച്ചിട്ട് അവർ ഒന്നും കാരണം എന്നാ എന്നറിയില്ല അപ്പം നമ്മൾ രണ്ട് ആഴ്ച്ചയും കൂടെ ക വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇരിക്കുന്നു

ആ എന്താണ് റീസൺ എന്ന് അറിയില്ല അപ്പം നിനക്ക് നിൻറേത് എല്ലാം ഓക്കെ ആയല്ലേ അപ്പം നമ്മൾ എങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെടണോ ആ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നിന്റെ കയ്യിൽ ഉണ്ടോ ആ നിനക്ക് ആയല്ലേ ആ എങ്കിൽ ഞാനും ഒന്ന് കോൺടാക്റ്റ് ചെയ്തേക്കാം എനിക്ക് ആ നമ്പർ ഒന്ന് വാട്ട്സാപ്പ് ചെയ്തേക്കണേ ആ ശരി എങ്കിൽ ഓക്കെ